ഞാൻ എൻ്റെ കാര്യം തന്നെ ഒരുദാഹരണം പോലെ പറയാം എന്താന്നു വെച്ചാൽ ഇപ്പോൾ ഞാൻ തന്നെ ഒരു പാട്ട് പഠിക്കാൻ വേണ്ടി ഒരു മാഷിനെ മാഷിൻ്റെ അടുത്താണ് പോയിരുന്നത് അവിടൊരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ടായിരുന്നു പക്ഷേ അതല്ലാതെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ഞങ്ങൾ തന്നെ ഒരു പാട്ട് സംഘം തുടങ്ങി അതിൽ ഞങ്ങളുടെ പാട്ടു ക്ലാസ്സിൽ നിന്നും പുറത്ത് നിന്നും അവിടുന്നിവിടുന്നൊക്കെ അല്ലറ ചില്ലറ തട്ടി മുട്ടി കുറച്ചാൾക്കാരെ ഒപ്പിച്ച് തന്നെ ഒരു ഒരു പാട്ട് സംഘം തുടങ്ങി ഞങ്ങൾ അത് എന്താണ് അങ്ങനെ ഒരു സംഘം തുടങ്ങിയതെന്നു വെച്ചാൽ പിന്നീട് ഞങ്ങൾ ബാക്കിയുള്ള ഒരു പല ഉത്സാഹപരിപാടികൾ വരുമ്പോഴും ഗാനമേളകൾ വരുമ്പോഴും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ അമ്പ ഈ ഓരോ ആൾക്കാർ ഞങ്ങളെ സമീപിക്കുമ്പോൾ ഈ അമ്പലച്ചടങ്ങുകൾ അല്ലെങ്കിൽ അമ്പല കമ്മറ്റിക്കാർ നടത്തുന്ന എന്തെങ്കിലും പരിപാടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും ഞങ്ങളീ പാട്ട് സംഘം ഒരുമിച്ച് പല ഗാനമേളകൾ നടത്താനും ഇങ്ങനെയുള്ള കുഞ്ഞി കുഞ്ഞി കച്ചേരികൾ നടത്താൻ ഒക്കെ ആയിട്ട് പോകും ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ പ്രാദേശിക കലാകാരന്മാരായത് ചെറിയ ചെറിയ പ്രാദേശിക കലാകാരന്മാർ എന്ന് പറയാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലത്ത് പ്രാദേശിക കലാകാരന്മാരും കരകൗശല വിദഗ്ദ്ധരും എങ്ങനെയാണ് അവർ അവരുടെ ഒരു മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വെച്ചു പരിപാടികൾ നടത്തിയതെന്നു വെച്ചാൽ ഈ ഈ പാവപ്പെട്ട വ്യക്തികൾക്കു വേണ്ടി ഒരു ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ഓർഫനേജ് തന്നെയെടുക്കാം അല്ലെങ്കിൽ ഒരു വൃദ്ധസദനമാകട്ടെ അവിടെയുള്ള മനുഷ്യർക്ക് വേൻടിയിട്ട് ഇവരൊരു കുഞ്ഞി കുഞ്ഞി പാട്ട് കച്ചേരിയോ എന്തെങ്കിലൊക്കെ നടത്താറുണ്ട് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണ് ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ നടത്തി വന്നിരുന്നത് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കലാ വൈ വൈവിധ്യ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ വിളിച്ച് അവരെ സമീപിച്ച് മറ്റുള്ളവർക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് അതെത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അതിന് ഞങ്ങളൊരു കുഞ്ഞ് ഒരു സംഘം പോലെ കൂടി ഞങ്ങളെല്ലാവരിലേക്കും ആ ഒരു കാര്യങ്ങൾ എത്തിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് അതെല്ലാം ചെയ്ത് ചെയ്ത് നടത്തി കൊണ്ട് വന്നിരുന്നത്